ഇന്ത്യൻ തൊഴിൽ എന്നു പറയുമ്പോൾ തന്നെ ആദ്യമേ ഓർമ്മ വരുന്നത് ഗവൺമെൻ്റ് ജോബ്സ് തന്നെയാണ് എന്തുകൊണ്ടും ഇന്ന് എല്ലാവർക്കും ഗവൺമെൻ്റ് ജോബ്സിനോട് തന്നെയാണ് കൂടുതൽ ഡിമാൻഡ് പ്രൈവറ്റ് ജോബ്സിനെ അപേക്ഷിച്ച് കൂടുതലും ആളുകൾ ഗവൺമെൻ്റ് ജോബ്സിന് വേണ്ടിത്തന്നെയാണ് ശ്രമിക്കുന്നതും ഇപ്പോഴത്തെ വരുന്ന തലമുറയ്ക്കും കൂടുതൽ ഇഷ്ടം ഗവൺമെൻ്റ് ജോബ്സിനെ തന്നെയാണ് പണ്ടത്തെ അപേക്ഷിച്ച് ഗവൺമെൻ്റ് ജോബ്സിന് ഡിമാൻഡ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രൈവറ്റ് ജോബ്സിന് ആർക്കും അധികം ഇമ്പോർട്ടൻസ് ഇല്ല കാരണം പ്രൈവറ്റ് ജോബ്സ് ഒരിക്കലും സെക്യൂർഡല്ലയെന്നാണ് പറയണത് ഗവൺമെൻ്റ് ജോബ് ആവുമ്പോൾ സെക്യൂഡാണ് പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പ്രൈവറ്റ് ജോബ് ആവുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ജോലി പോകാവുന്ന ഒരിതാണ് ഒരു ഗ്യാരൻ്റിയും ഇല്ല പിന്നെ ഇപ്പോൾ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഐ ടി കമ്പനി തന്നെയാണ് സാമ്പത്തിക മാന്ത്യംമൂലം ബൾക്കായിട്ടാണ് ആൾക്കാരെ പിരിച്ചു വിടുന്നത് അതുകൊണ്ടുതന്നെ കുറേ പേർ ഇപ്പോഴും നല്ല പഠിപ്പും വിദ്യാഭ്യാസവുമുള്ള കുറേ പേർ പി ജിയും പി എച്ച് ഡിയൊക്കെ ഉള്ളവർ ഇപ്പോഴും കുറേ പേർ ജോലിയൊന്നുമില്ലാണ്ട് ബിടെക്ക് എംടെക്കൊക്കെ കഴിഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ പേരുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്നു പറയുന്നത് കൂടുതലും ഇപ്പോഴത്തെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടിയിട്ടുള്ള ഒരു മാറ്റമാണ് അത് വന്നതോടുകൂടി കുറേ ജോബ്സിനൊക്കെ അത് യൂസ്ഫുള്ളാണ് അതുപോലെത്തന്നെ കുറേ മേഖലകളിലതൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് അതുപോലെത്തന്നെ അതൊരു വലിയൊരു നെഗറ്റീവ് വശം നോക്കുകയാണെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നല്ല പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഒരു നെഗറ്റീവ് വശം എന്നു പറയുമ്പോൾ കുറേ പേരുടെ ജോലിയിനെയത് എഫക്ട് ചെയ്യും ചെയ്യും ഇപ്പോൾ കൂടുതലും എല്ലാവർക്കും ഇഷ്ടവും അത് പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും കൂടുതൽ എല്ലാവരും പ്രിഫറൻസ് കൊടുക്കുന്നത് ഗവൺമെൻ്റ് ജോബ്സ് തന്നെയാണ് അതിനുവേണ്ടി ഇപ്പോഴും ഈ പി എസ് സി കോച്ചിങ്ങ് എസ് എസ് സി ബാങ്ക് കോച്ചിങ്ങ് അങ്ങനെ എല്ലാത്തിനും ഇപ്പോഴും ഇഷ്ടംപോലെ കോച്ചിങ്ങ് സെൻ്ററിൽ ആളുകൾ തിങ്ങിനിറഞ്ഞു തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കണം ട്വൽത്ത് കഴിയുമ്പോഴെ എല്ലാവരും പി എസ് സി കോച്ചിങ്ങിനാണ് പോവുന്നത് പണ്ടു മുതൽക്കേ കണ്ടുവരുന്നൊരു ഇതാണ് ഐ ഐ ടി പ്രൈവറ്റ് ജോബ്സിനേക്കാളൊക്കെ കുറച്ചും കൂടി ഒരു ജോബ് സെക്യൂർഡ് ആയതുകൊണ്ടുതന്നെയാണ് അതിനിത്ര ഡിമാൻഡും ഐ ടി എന്നു പറയുമ്പോൾ ഒരു സുപ്രപാതത്തിൽ പെട്ടെന്നാണ് രാവിലെ ചെല്ലുമ്പോഴേക്കും ടാഗൂരി വച്ച് നിങ്ങൾ റിസൈൻ ചെയ്ത് റെസിഗ്നേഷൻ പേപ്പറിട്ടിട്ട് പോകണം എന്നു പറയുക പക്ഷെ ഗവൺമെൻ്റ് ജോബാകുമ്പോൾ അങ്ങനെയൊരു വിഷയമില്ല അതുകൊണ്ടുതന്നെയാണ് കൂടുതലെല്ലാവർക്കും ഗവൺമെൻ്റ് ജോബ്സിനത്ര ഡിമാൻ്റും എല്ലാവരും അത് കിട്ടാൻ വേണ്ടി മെനക്കെട്ടിരുന്ന് പഠിക്കുന്നതും എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതുമെല്ലാം സാലറിയുടെ കേസിൽ കുറച്ചുംകൂടി പ്രൈവറ്റ് ജോബ്സ് ബെറ്ററാണെങ്കിൽപ്പോലും ജോബിൻ്റെ സെക്യൂരിറ്റി നോക്കുമ്പോൾ പ്രൈവറ്റ് ജോബിനെക്കാളും നല്ലത് ഗവൺമെൻ്റ് ജോബ്സ് തന്നെയാണ്